ഹലോ ഹലോ ആ

ആ വിളിച്ചായിരുന്നു എനിക്കൊരു ഈ ആര്യവില്ല്യാ സ്റ്റോറല്ലേ ആ എനിക്കൊരു ബ്രൗൺ പേപ്പറും ഒരു സയന്റ്റിഫിക് കാൽക്കുലേറ്ററും ഒരൂ കാർട്ടൂൺ ലേബലും വേണവായിരുന്നു ആ ഇത് മൂന്നും അയച്ചാൽ മതി ഈ ബ്രൗൺ പേപ്പർ ഏതൊക്കെ കളറാ അവിടുള്ളത് ബ്രൗൺ കളറാ അതെങ്ങനാണ് മറ്റേ പ്ലാസ്റ്റിക്കാണോ അതോ പേപ്പറാണോ ആ പേപ്പറിൻ്റെ ബ്രൗൺ പേപ്പറ് മതിയെ എങ്ങനാണ് റോള് റോളായിട്ടാണോ ഷീറ്റായിട്ടാണോ റോളാ ഷീറ്റില്ലേ ആണോ ആ എന്നാൽ റോള് മതി ഒരു റോളൊരു രണ്ട് റോള് വേണേ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ റേറ്റെങ്ങനാണ് ആ എത്ര നാളത് ലാസ്റ്റ ചെയ്യും വാറണ്ടിയുണ്ടോ ഉളളൂ അപ്പോൾ ഈ വാറണ്ടി കാർഡ് ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ടോ നിങ്ങൾ ആ ഏതൊക്കെ ഈ കമ്പനീടെ നല്ല കമ്പനിയാണല്ലോലേ ലാസ്റ്റ ചെയ്യുവല്ലോലേ മേടിച്ച് കഴിയുമ്പോൾ പോയീന്ന് പറഞ്ഞാൽ ആ എങ്ങനാണ്

ആ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ഒരു ഒരു പ്രാവശ്യം മേടിച്ചിട്ട് കാൽക്കുലേറ്ററ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു തിരിച്ച് കൊണ്ട് കൊടുക്കാൻ ചെന്നിട്ടവർ എടുക്കുന്നത് പോലും ഇല്ലായിരുന്നു അതോണ്ടാ ഞാനിപ്പം അങ്ങ് ചോദിച്ചത് ആ ഈ കട എവിടായിട്ടാണ് ഇരിക്കുന്നത് ഇല്ല ഏതു പള്ളി ഹലോ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആ കേൾക്കുന്നുണ്ടോ എ പള്ളീടെ എവിടായിട്ടാണ് ഓ ഓക്കെ അപ്പം ഞാൻ എനിക്കെങ്ങനെ ഡെലിവറി നിങ്ങൾ കൊണ്ട് കൊണ്ടുത്തരോ അതോ ഞാൻ വന്ന് മേടിക്കേണ്ടി വരുമോ ആ ഞങ്ങൾ ഇപ്പം ആ പള്ളീടവിടെ ഞങ്ങളുമായിട്ടൊരു മൂന്ന് കിലോമീറ്ററ് വ്യത്യാസമേ ഉള്ളൂ അപ്പം ഹോം ഡെലിവറി ഫ്രീ ആയിരിക്കത്തില്ലേ അതിപ്പെന്താ അതിപ്പം ഈ ബ്രൗൺ പേപ്പറൊക്കെ എങ്ങനെയാണ് ബൾക്കായിട്ടെടുക്കാൻ പറ്റുന്നത് ഞങ്ങളെപ്പഴും അവിടുന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത് അപ്പം ഞങ്ങളെ കൺസിഡർ ചെയ്യണ്ടേ ഞങ്ങളെല്ലാ സാധനങ്ങളും അവിടുന്നാണ് മേടിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരം രൂപയ്ക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്തത് നിങ്ങളുടെ കടേന്ന്

ആ അപ്പം ഡിസ്കൗണ്ടൊക്കെ ഇട്ടിട്ട് ഹോം ഡെലിവറി ചെയ്യേ ആ ഇവിടെത്തുമ്പം വിളിച്ചാൽ മതി ഞാൻ താഴോട്ടിറങ്ങി നിന്നേക്കാം ആ ഞാൻ പ ഞാൻ ലൊക്കേഷൻ ഞാൻ ലൊക്കേഷൻ പറയാം പിന്നെ ബ്രൗൺ പേപ്പറും സയൻറ്റിഫിക് കാൽക്കുലേറ്ററും പിന്നെ ഒരു കാർട്ടൂൺ ലേബലൂടെ വേണം

ആ ശരിയെന്നാൽ ആ ഓക്കെ ഓക്കെ